നമ്മുടെ പ്രദേശത്ത് തീർച്ചയായും കുറേ അന്ധവിശ്വാസങ്ങളുണ്ട് അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത നാടുണ്ടോയെന്ന് എനിക്കറിയില്ല കേരളത്തിൽ ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ ഇന്നും നിലനിൽക്കുന്ന കുറേ വിശ്വാസങ്ങളുണ്ട് കുറേ എന്താ പറയുക ഉണ്ട് നമുക്ക് നമ്മുടെയിവിടെ അന്ധവിശ്വാസങ്ങളുണ്ട് ഇല്ലായെന്നല്ല ഉണ്ട് ഒത്തിരിയേറെ അന്ധവിശ്വാസങ്ങളുണ്ട് കാവുണ്ട് ഗുളികൻ തറയുണ്ട് പിന്നെ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട് പിന്നെ അതായത് ഓരോരുത്തരുടെ ഓരോ വിശ്വാസമാണ് അത് എങ്ങനെ അവര് അവര് അവർ അതിന് വെച്ചാരാധന ഉള്ളവരുണ്ട് പിന്നെ അതൊക്കെ എന്താ പറയുക പണ്ടുള്ള പിന്നെ കാലത്ത് അവരുടെ കാർന്നോന്മാരിൽ നിന്ന് കൈ മാറി വരുന്നു ഇപ്പോൾ മക്കള് നോക്കുന്ന കുറേ പിന്നെ ആരാധനകളും വിശ്വാസങ്ങളൊക്കെയുണ്ട് അപ്പോൾ അവര് പിന്നെ ഞങ്ങളുടെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇവിടെയുള്ള അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ സമയത്ത് ഓരോ വീട്ടില് ചെറിയ ചെറിയ തറ പോലെ അവരുടെ അമ്പലം പോലെയുണ്ട് അപ്പോൾ ആ അമ്പലവും ഇതും പിന്നെ ഗുളികൻ തറയുണ്ട് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് ആ വിശ്വാസങ്ങളെ അവര് അവര് ശക്തമായി അത് വിശ്വസിക്കുന്നു ദൈവത്തെ അവര് ശക്തമായി വിശ്വസിക്കുന്നു അത് കാരണമാണെന്നുള്ള ഓരോ വിശ്വാസത്തിൻ്റെ പുറത്താണ് ചെയ്യുന്നത് നമ്മള് ചില പള്ളികളിൽ പള്ളികളിൽ നേർച്ചയിടുമ്പോൾ പറയും മാതാവ് നടത്തിത്തരും ചില മുസ്ലിയാരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പറയും ഓര് പിന്നെ എന്താ പറയുക എന്തെങ്കിലും ബാധയൊക്കെ കേറീട്ടുണ്ടെങ്കിൽ ഒഴിപ്പിക്കും അങ്ങനെയൊക്കെ പറയില്ലേ അതേപോലെ തന്നെ ശക്തമായ വിശ്വാസമാണ് അവർക്ക് അതിലേക്കുള്ളത്